ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ മാഡം ആ മാഡം എന്റെ പേര് മാഡം എന്റെ പേര് രഫ്ന എന്നാണേ ഞാന് ഇവിടെ കോഴിക്കോട് രാമനാട്ടുകരേന്നാണെ വിളിക്കുന്നത് ഞാന് ഞാനൊരു എല് ഐ സില് വര്ക്ക് ചെയ്യുന്ന ആളാണേ എല് ഐ സി പോലത്തെ ഒരു ഇന്ഷൂറന്സില് വര്ക്ക് ചെയ്യുന്ന ഒരു ആളാണേ അപ്പം മാഡത്തിനു കൂടാന് താല്പര്യം ഉണ്ടോ എന്നൊക്കെ അറിയാന് വേണ്ടിട്ടും അയിന്റെ ഡീറ്റയില്സൊക്കെ പറഞ്ഞ് തരാന് വേണ്ടീട്ടും ആയിരുന്നു വിളിച്ചതേ മാഡം എന്തേലും തിരക്കിലൊക്കെ ആണോ ആണോ മാഡം ആ മാഡം എന്തെങ്കിലും ഇങ്ങനത്തെ എന്തേലും ചിട്ടിലോ അങ്ങനെ എന്തേലും ഉണ്ടോ ആണോ മാഡം മാഡം കൂടിയേക്കുന്ന ചിട്ടിയിൽ മാസം എത്രയാണ് അടക്കുന്നത് മാസം രണ്ട് ആ മാഡം മാസം രണ്ടായിരത്തി അഞ്ഞൂറാണ് അടക്കുന്നത് അല്ലേ ഞാൻ ഇത് ഈ എല് ഐ സിനെ കുറിച്ച് പറയുകയാണങ്കിൽ അഞ്ഞൂറ് രൂപ അടച്ചാൽ മതി മാസം അഞ്ഞൂറ് രൂപാന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കുറവുള്ളതാണേ ഏറ്റവും കുറവുള്ളതാണ് ഈ അഞ്ഞൂറ് രൂപാന്ന് പറയുന്നത് ഈ അഞ്ഞൂറ് രൂപയാണ് മാസം അടക്കേണ്ടത് ഇപ്പോൾ മാഡത്തിന് മാരീഡ് ആണോ മാഡം അപ്പോ മാഡത്തിന്റെ ഹസ്ബന്ഡിനോട് ഒക്കെ താല്പര്യം ഉണ്ടോന്നു ചോദിക്കു മാഡം ഹസ്ബന്ഡും ആയിട്ടൊന്നു തീരുമാനം എടുത്തിട്ട് ഒന്ന് പറഞ്ഞാലും മതി മാസം അഞ്ഞൂറ് രൂപ വെച്ചിട്ട് അടച്ചാൽ മതി ഇതിപ്പോൾ എപ്പോൾ ഇങ്ങളിപ്പോൾ കൂടിട്ടിണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ രണ്ട് മൂന്നു വര്ഷമാണെങ്കിൽ തന്നെ ഞങ്ങൾ ഒഴിയുകയാണ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു രണ്ട് മാസം മുന്പ് ഞങ്ങളോട് ഒന്ന് പറയാണ് ഒഴിയുകയാണ് എന്നൊക്കെ അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ അതിനുള്ള ആവശ്യങ്ങള് കാര്യങ്ങളൊക്കെ ചെയ്തു തരും ഇപ്പോൾ മാഡം കൂടാന് താല്പര്യം ഉണ്ടെങ്കിൽ തന്നെ ഇതിനിപ്പോൾ മാഡത്തിന്റെ ആധാര് കാര്ഡും പിന്നെ ബാങ്ക് പാസ് ബുക്കിന്റെ ഒരു കോപ്പി പിന്നെ പാന് കാര്ഡിൻ്റെ ഒരു കോപ്പി ഇതൊക്കെ ആണ് വേണ്ടത് ആധാര് ഒറിജിനല് വേണം അത് ഞങ്ങൾ അപ്പം തന്നെ തിരിച്ചു തരുന്നത് ആയിരിക്കും കേട്ടോ ആ അപ്പോൾ അത് ആ ഹസ്ബന്ഡ് എന്താ വര്ക്ക് ചെയ്യുന്നത് മാഡം ടൈലറിംഗ് ഷോപ്പാണല്ലേ അപ്പോൾ അദ്ദേഹത്തിനൊക്കെ കൂടുന്നത് നല്ലത് ആയിരിക്കും ഇപ്പം മാഡത്തിന്റെ ഒക്കെ പേരില ങ്കിലും ആണോ ആ മാഡത്തിന് ഇപ്പോൾ കൂടുക ആണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഒരുമിച്ച് ഒരു പൈസ കിട്ടുന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല കാര്യമല്ലേ എന്തെങ്കിലൊക്കെ ആവശ്യത്തിന് പ്രയോജനപ്പെടും ഒക്കെ ചെയ്യും ഓക്കെ മാഡം മാഡം ചോദിച്ചിട്ടൊന്ന് ഈ നമ്പറിലേക്ക് കോള് ചെയ്താൽ മതി ഇല്ലെങ്കിൽ ഞങ്ങൾക്കിവിടെ രാമനാട്ടുകര വന്ന് അന്വേഷിച്ചാൽ മതി മാഡം എന്നാൽ ചോദിച്ചിട്ട് വിളിക്കാം കേട്ടോ ഓക്കെ മാഡം താങ്ക് യൂ